ഗ്രാമീണ രീതിയിലുള്ള അധ്യാപനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അധ്യാപകരും അധ്യാപികമാരും കുട്ടികളോട് നല്ല രീതിയിലാണ് പെരുമാറുന്നത് അതായത് അവരെ സ്വന്തം അച്ഛൻ അമ്മയെപ്പോലെയാണ് ഇവർ പെരുമാറുന്നത് അതുകൊണ്ട് വളരെ ഗുണമാണുള്ളത് പിള്ളേർക്ക് പഠിക്കാനും ഒരു നല്ല കാര്യമായിട്ടാണ് തോന്നുന്നത് സ്വന്തം അച്ഛൻ അമ്മ അമ്മയെപ്പോലെ കാണുമ്പോൾ നമുക്ക് എന്തും പറയാം അവരുടെയടുത്ത് പിന്നെ അതുകൊണ്ട് ഏറ്റവും നല്ലൊരു കാര്യമായിട്ടാണ് തോന്നുന്നത് പിന്നെയെന്താ വെച്ചാൽ കുട്ടികളുമായിട്ട് വളരെയധികം മിൻഗിള് ചെയ്യാന് ഇത് നല്ലൊരു ഇതായിട്ട് തോന്നുന്നുണ്ട് കാരണമെന്താ വെച്ചാൽ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ വെച്ചാൽ പിള്ളേർ വല്ലാണ്ട് അടിക്കും ദ്രോഹിക്കുകയൊക്കെ ചെയ്യും അപ്പോൾ അത് അവരെ വല്ലാണ്ട് പഠിപ്പിൽ നിന്ന് പഠിപ്പിൽ നിന്ന് ബാക്കോട്ടേക്ക് വലിക്കുകയും പിന്നെ ആൾക്കാരുമായിട്ട് പെരുമാറാൻ ഉള്ള ഒരു ഇതെല്ലാം പോയി പോകും അപ്പോൾ വളരെ നല്ലതാണ് എന്താ പറയുക ഗ്രാമീണ മേഖലയിലുള്ള അധ്യാപകർ വളരെ നല്ലതായിട്ടാണ് അവർ എന്താ പറയുക അവരുടെയൊരു ജോലി ആയിട്ടല്ല അവരെ ഒരു കടമയായിട്ടാണ് അവർ ചെയ്യുന്നത് ഇപ്പം മാതാ പിതാ ഗുരു ദൈവം എന്നാണല്ലോ അപ്പം മാതാവ് കഴിഞ്ഞാൽ പിതാവ് പിതാവ് കഴിഞ്ഞാൽ ഗുരു ഗുരുക്കന്മാരാണ് ഇവരുടെയെല്ലാം അവർക്ക് അനുഗ്രഹം നൽകുന്നതും ഇവരെ ഇപ്പോഴൊരു അറിവിലേക്ക് എത്തിക്കുന്നതും ഗുരുക്കന്മാരാണ് അപ്പം ഗ്രാമീണമേഖലയിൽ ഉള്ളവർ നല്ല രീതിയിലാണ് അദ്ധ്യാപക അധ്യാപകനായാലും അധ്യാപികയായാലും അത് കൊണ്ടുപോകുന്നത്